ഗ്രാമ പ്രദേശത്തുള്ള വിവിധതരം വിനോദങ്ങളുണ്ട് അതില് പലതും പലരുടെയും സ്ട്രെസ്സ് അല്ലെങ്കിൽ വർ ജോലിപരമായുള്ള കാര്യങ്ങള് കൊണ്ടുള്ള പ്രെഷർ എല്ലാം ക കുറയ്ക്കുവാൻ ഈ വിനോദങ്ങൾ സാധിക്കുന്ന അതെല്ലാം ഉപകാരപ്പെടുന്നതാണ് അതുപോലെതന്നെ ഗ്രാമപ്രദേശത്തുള്ള കളികളുമെല്ലാം നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും മൈൻ്റ് റിലാക്സ് ആകാനും എല്ലാം വളരെയധികം ഉപകാരപ്പെടുന്നു എന്നാണ് വേറൊരു ഇത് സിറ്റിയിലുള്ള നമ്മുടെ ബേസ്ബോൾ ടെന്നീസ് എന്നീ ഫ്രീ ടൈം വിനോദങ്ങളെ വെച്ച് ഗ്രാമപ്രദേശങ്ങളിലെ വിനോദങ്ങൾ വളരെയേറെ ഗുണമായി മനസിൽ പ്രതിഭലിക്കും